പണ്ടുകാലത്തു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടില് ഉണ്ടായിരുന്നു കൊണ്ടിരുന്നത് ചെറിയ ടീവികളും അല്ലെങ്കിൽ റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയായിരുന്നു അതിലൂടെയായിരുന്നു നമ്മൾ ഈ സിനിമകളും പിന്നെ സ്പോർട്സ് ചാനലിൻ്റെ അതിൻ്റെ ഓരോ ന്യൂസുകളും അങ്ങനെയെല്ലാം കണ്ടോണ്ടിരുന്നത് ഇപ്പോന്നു പറയുമ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ടീവി ഈ ഫിലിമു കാണണമെങ്കിൽ വലിയ ടീവി സ്മാർട്ട് ടീവിയൊന്നും ഇല്ലെങ്കിൽ തിയേറ്റർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഇപ്പോൾ സ്പോർട്സ്ന്റെ കാര്യത്തിൽ ആണെങ്കിലും ടീവിയുണ്ട് പിന്നെ ഓരോ ഓരോ ചാനൽ മറ്റേ ഈ ഫോണിൽ തന്നെ നമുക്ക് കുറെ ആപ്പുകളുണ്ട് അതിന്റകത്തിരുന്ന് കാണാം അങ്ങനെയുള്ള പല തരത്തിലുള്ള മാറ്റങ്ങളും വന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ എന്തില് ഏതില് ന്യൂസ് കാണണം തന്നെ ഇപ്പോൾ നമുക്ക് ഫോണെടുത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഫോണെടുത്ത് കഴിഞ്ഞാൽ കാണാം പണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു നമ്മൾ എഴുനേൽക്കുന്ന സമയത്തായിരിക്കും വാർത്ത വരിക അപ്പോൾ അതിൻ്റെ റേഡിയോക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയായിരുന്നു ഇനി വരാൻ പോകുന്ന തലമുറയെന്നു പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഈ ഭയങ്കരായിട്ടുള്ള ദോഷങ്ങൾ ഒക്കെയായിരിക്കും ഫുൾ ടൈം ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ഫുൾ ടീവി അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും